ഇപ്പോള് മാധ്യമങ്ങളില് ഏറ്റവും കൂടുതല് ചര്ച്ച ചെയ്യുന്നത് ഇപ്പോള് എലക്ഷന് കഴിഞ്ഞു അപ്പോള് അതിന്റെ തിരഞ്ഞെടുപ്പും അത് സംബന്ധിച്ച് മറ്റ് അവര്ക്കോരോ ജയിച്ച പാര്ട്ടികള്ക്കും ഓത്ത് ചൊല്ലുന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇപ്പോള് ഏറ്റവും കൂടുതല് ചര്ച്ച ചെയ്യുന്നത് ഓരോ മന്ത്രിക്കും ഏതൊക്കെ മേഖലയില് ഏതൊക്കെ ഏതൊക്കെ സ്ഥാനമാണ് അര്ഹിക്കുന്നത് എന്നൊക്കെയാണ് ഇപ്പോള് ചര്ച്ച ചെയ്യുന്നത് ആരൊക്കെ എവിടെ ആര്ക്കൊക്കെ എന്തൊക്കെ സ്ഥലമാണ് കൊടുക്കേണ്ടത് എന്നൊക്കെയാണ് ഇപ്പോഴത്തെ ചര്ച്ച എല്ലാ എല്ലാ സ്ഥലങ്ങളിലും തന്നെ ബി ജെ പിക്ക് നല്ല നല്ലവണ്ണം ഭൂരിപക്ഷം വോട്ടോടെ ജയിച്ചു ഇപ്പോള് മോദി ഇപ്പം വീണ്ടും സര്ക്കാരിലേക്ക് വീണ്ടും അഞ്ചാം വര്ഷം വീണ്ടും വന്നിരിക്കുന്നു അങ്ങനെ അതൊക്കെയാണ് ഇപ്പോഴത്തെ ചര്ച്ച പൊതുവേ ഇപ്പം ഇതാണിപ്പം എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്ന ചര്ച്ച പിന്നെ അല്ലാതെ എന്നുവെച്ചാൽ ഇപ്പോൾ ഓരോ ഗ്രാമ പ്രദേശങ്ങള്ക്കും വനത്തില്നിന്ന് ഓരോ ആനകളും പിന്നെ അതുപോലെ വന്യജീവികളും ഇറങ്ങുന്നതുകൊണ്ട് അത് വലിയൊരു ആപത്തായിരിക്കുന്നു അതുകൊണ്ട് അതൊക്കെയാണ് ഇപ്പോഴത്തെ ഏറ്റവും കൂടുതല് വിഷയം പിന്നെ എല്ലാ സ്കൂള് തുറന്നു അങ്ങനെ ഇപ്പം എല്ലാവരും പുതിയ ഒരു വര്ഷത്തിലേക്ക് എല്ലാവരും സ്കൂളിലേക്ക് പോകുന്നതുകൊണ്ട് ഇപ്പം അതും ഒരു ചര്ച്ചയാണ്

അതാണ് ഏറ്റവും കൂടുതലുള്ളത് പിന്നെ എല്ലാം പ്ലസ് ടുവിന്റെ റിസള്ട്ടൊക്കെ കഴിഞ്ഞു അതും ഉണ്ട്